ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് നല്ല രീതിയില് വിനോദസഞ്ചാരകേന്ദ്രങ്ങളും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയില് ഉയർന്നുവരുന്ന ഒരു ഇത് ആയിട്ടാണ് ഉള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയില് മെച്ചപ്പെട്ട് വരുന്ന ഒരു സംവിധാനമാണ് വിനോദസഞ്ചാരം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എല്ലാവരും ഇപ്പം വീട്ടില് അടങ്ങിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ആൾക്കാരാരും പണ്ടത്തെപ്പോലെ ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ മടിയുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പോൾ എങ്ങനെന്ന് വച്ചു കഴിഞ്ഞാല് ഇപ്പോൾ എല്ലാവരും അതായത് ടൂറും ട്രാവല് ഓരോ സ്ഥലങ്ങള് കാണല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഏ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയില് ടൂറിസം വിഘ് വികസിക്കുന്ന ഒരു നാടാണ് കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കോഴിക്കോട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ എ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേ തന്നെ രണ്ടാമത്തെ ഒരു സിറ്റി ആയിട്ടാണ് ഉള്ളത് സിറ്റി മാത്രമല്ല നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ തുഷാരഗിരി കക്കയം ഡാം അങ്ങനെ പല പല സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒക്കെ ഒര് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തണെങ്കില് ഇവിടേക്കുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പാക്കി വരികയാണെങ്കിൽ മാത്രമെ നമുക്ക് ഇങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ നല്ല സുഗമമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അപ്പം യാത്രയും കാര്യങ്ങളൊക്കെ സുഖമമായിട്ട് ചെയ്യണം എങ്കില് നല്ല രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെ വേണം അപ്പം റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിനോദസഞ്ചാരികൾ ആണെങ്കിലും നമ്മൾ ആണെങ്കിലും ആരാണെങ്കിലും നല്ലൊരു റോഡ് ഉണ്ടെങ്കിൽ മാത്രേ അങ്ങോട്ടേക്കൊക്കെ പോവാനായിട്ട് നമുക്ക് തോന്നുകയുള്ളു ഇപ്പോൾ കൊള്ളില്ലാത്ത ഒരു മോശം വെച്ച റോഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകില്ല അപ്പോൾ നല്ല റോഡ് കാര്യങ്ങളൊക്കെ വെക്കുക പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് ഒരു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ശ്രമിക്കുക അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊരു ചെറിയ രീതിയിലുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാസാക്കി കേറ്റി വിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും